ഹോട്ടലിൽ കയറുമ്പോൾ ബീഫ് ബിരിയാണി അൽഫാം കുഴിമന്തി ഇതൊക്കെ ഞങ്ങൾ ദൂര യാത്രയൊക്കെ പോകുമ്പോൾ അങ്ങനെ ഹോട്ടലിലൊക്കെ കയറി കഴിക്കും പിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോഴും പുറത്ത് ഹോട്ടലിൽ പോയിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ തന്നെ കഴിക്കും പിന്നെ തട്ടുകടയിൽ പറഞ്ഞാൽ വൈകുന്നേരം അല്ലേ മക്കളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ അങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ തട്ടുകടയിൽ കയറിയാണ്ട് ദോശ വെള്ളപ്പം അതേമാതിരി ചിക്കൻ അങ്ങനെ ചായ അതൊക്കെ ഞങ്ങൾ തട്ടുക തട്ടുകടയിൽ നിന്നു കഴിക്കും